തീർച്ചയായും ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നനങ്ങളെ കുറിച്ചു ഒരു വാർത്ത വിനിമയ വിനിമയങ്ങളും അത് പത്രങ്ങളായാലും ടിവി ആയാലും ടെലിവിഷനുകൾ മാധ്യമങ്ങൾ ആയാലും ഒരിടത്തും ഒരു വാർത്തകൾ പോലും ഒരിക്കലും രേഖപ്പെടുത്താറില്ല കാരണങ്ങൾ അവിടെ ചിലപ്പോൾ കുട്ടികൾക്ക് ഇത് കുട്ടികൾക്ക് എതിരായുള്ള ഹരാസ്മെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരായുള്ള ഹറാസ്മെൻസ് കാരണം അവർക്ക് അതൊരു ന്യൂസ് വാല്യു ഇല്ലാത്ത ഒരു കാര്യമായത് കൊണ്ട് തന്നെ അവർ ഗ്രാമങ്ങളിലേക്ക് ഒരിക്കലും നോക്കാറില്ല പിന്നെ അവരുടെ യാത്രാ ചിലവുകളും കാര്യങ്ങളും അവരുടെ റിപ്പോർട്ടറിൻ്റെയും കേമറാമാൻ്റെയും ചിലവുകളെല്ലാം നോക്കുണ്ടെന്നെ ഒരിക്കലുമൊര് ഗ്രാമപ്രദേശങ്ങൾളെ വാർത്തകൾ നമ്മ്ക്കൊരിക്കലും ലഭ്യമായിട്ടില്ല അതും സത്യസന്ധമായ വാർത്തകളൊന്നും അല്ല ലഭിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എങ്ങനെ എങ്കിലും അറിഞ്ഞാൽ ചിലപ്പം അത് രണ്ടു ദിവ സം മൂന്നു ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളിലേക്ക് എത്തുന്നത് അന്നൊക്കെ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത് മാറി മറിഞ്ഞു ആളുകൾ വാ കൊണ്ട് പറഞ്ഞുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ അവരെ എപ്പോഴും ടൗൺ ഏ രിയകളിലോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തു കിട്ടുന്ന വാർത്തകളോട് ആണ് അവർക്ക് താൽപ്പര്യം അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ കുറിച്ചു ഒരിക്കലും ഒരു വാർത്ത ചെയ്യാൻ ഒരാൾക്കും താൽപ്പര്യമില്ല കാരണം അവിടെ എപ്പോഴും സമാധാനം അല്ലേ ശാന്തി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവർക്ക് എപ്പോഴും വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എപ്പോഴും ഇവർ ശ്രദ്ധ കേന്ദ്രികരിക്കാറുള്ളത് കേന്ദ്രീകരിക്കാറുള്ളത് അത് അതിലാണ് എപ്പോഴും ഓഡിയൻസിനെ അവർക്ക് കിട്ടാറുമുള്ളത് അത് കൊണ്ടു തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ വാർത്തകളോട് ഒരു മാധ്യമപ്രവർ പത്രമാധ്യമങ്ങളായാലും മറ്റേത് മാധ്യമപ്രവർത്തന പ്രവർത്തനങ്ങളിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും ഒരു ചർച്ചചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതാണ്